ഹലോ ആ ഹലോ അതെ എന്തായിരുന്നു ഓക്കെ ഓക്കെ ആൾ ഭയങ്കര ടയേർഡ് ആണോ ആ ആ അത് ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റുമോ എത്ര ഏജ് ഉള്ള ആളാണ് ബ്രദർ ഓക്കെ ഓക്കെ നാൽപ്പത്തേഴ് വയസ്സായ ആളാണ് അല്ലേ നിങ്ങൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ് ഓക്കെ ഈ നെഞ്ച് വേദന എന്ന് പറയുമ്പം നമുക്ക് എന്തിൻ്റെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കിയാലേ മനസിലാവുള്ളൂ എന്തിൻ്റെയാണ് കാരണം കൊണ്ടെന്ന് എന്ത് ജോലിക്കാണ് പോവുന്നത് അതായത് വല്ല കൂലിപ്പണി ആണോ അതോ ഓഫീസ് വർക്ക് ആണോ ഹലോ ഓക്കെ അപ്പം എന്തെങ്കിലും പ്രഷർ അതായത് എന്തെങ്കിലും വർക്ക് പ്രഷർ കാരണം ആണോ എന്ന് അറിയത്തില്ലല്ലൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു അര മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ വരാൻ പറ്റുവോ ഓക്കെ വേറെ വേറെ വല്ല ബുദ്ധിമുട്ട് ഉണ്ടോ ആൾക്ക് വെള്ളവും കൊടുത്ത് കുറച്ച് നേരം ആ സമാധാനത്തോടെ ആൾക്ക് വിയർക്കുന്നുണ്ടോ വിയർക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ നിങ്ങൾ എന്നാൽ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ട് വരുന്നത് ആയിരിക്കും കേട്ടോ ബെറ്റർ ഓപ്ഷൻ ഇപ്പം അറ്റാക്കിൻ്റ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് വരുവായിരുന്നെങ്കിൽ ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നമ്പറിലേക്ക് വേണമെങ്കിൽ ഞാൻ ഇല്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയാം നിങ്ങള അഡ്രസ്സ് ഒന്ന് അല്ല നിങ്ങൾക്ക് ഇത് നമ്പർ തരാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് അഡ്രസ്സ് പറഞ്ഞ് കൊടുക്കാൻ പറ്റുവല്ലോ അല്ലാതെ വേറെ വണ്ടികൾ ഒന്നും ഇല്ലേ വേഗം കൊണ്ടുവരാൻ പറ്റിയത് ഓക്കെ ഞാൻ ഒരു ആംബുലൻസ് പറഞ്ഞ് വിടാൻ നോക്കാം കാരണം ആൾ നന്നായിട്ട് വിയർക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ കുറച്ച് വെള്ളം കൊടുത്ത് ആളുടെ മുഖം ഒക്കെ ഒന്ന് തുടച്ച് കൊടുക്ക് ഇപ്പം പച്ച വെള്ളത്തിൽ എന്നിട്ട് ഫാൻ ഒന്ന് ഇടുവായിരുന്നെങ്കിൽ ഫാനോ അല്ലെങ്കിൽ കാറ്റ് വീശുന്ന ആൾക്കൊന്ന് ആ ഒരു ഇത് കുറച്ച് ഒരു ഇതാക്കി വിട് ചൂടാക്കാതെ അപ്പം എന്നിട്ട് ഞാൻ ഒരു ആ വണ്ടി വേഗം അറേഞ്ച് ചെയ്യാം നിങ്ങൾ സ്ഥലവും കാര്യവും നിങ്ങൾ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുവാണെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പം ഞാൻ അത് ആ ഡ്രൈവറിന് അയച്ചുകൊടുത്തിട്ട് അവർ വന്നോളും വേഗം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവർ വരും അപ്പം നമുക്ക് വേഗം ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നയായിരിക്കും ബെറ്റർ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോരൂ കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് അതിന്റെ ഇടയ്ക്ക് എന്തായാലും ആംബുലൻസ് പറഞ്ഞ് വിടാം ഓക്കെ